മൃഗ സംരക്ഷണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുങ്ങൾക്കു കൊടുക്കുന്ന ഭക്ഷണം കാര്യം എന്തു ഭക്ഷണം കൊടുത്താലും നല്ലത് കൊടുക്കുക എങ്കിൽ മാത്രമേ ആ മൃഗങ്ങൾക്കും അവരുടെ സന്താനോത്പാദനത്തിനുമൊക്കെ വളരെ ആവശ്യമാണ് അവരുടെ ആരോഗ്യത്തിനു വളരെ ആവശ്യകരമാണ് അപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വളർത്തുന്ന മൃഗം പശു ആട് പോത്ത് കാള പന്നി പിന്നേ മൃഗങ്ങളല്ലെങ്കിലും പക്ഷികളിൽ കോഴി താറാവ് അങ്ങനെയങ്ങനെ നീണ്ട നിരയുണ്ട് പശു വളർത്തലിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പശുവിനു കാടിവെള്ളമാണ് ഏറ്റവും കൂടുതൽ വെ വെള്ളമായിട്ടു കൊടുക്കുന്നത് കാടിൽ നിന്നു പറഞ്ഞാൽ അരി കഴുകിയ വെള്ളം കഞ്ഞിക്ക് ഇടുന്ന അരി കഴുകിയ വെള്ളമാണ് കാടിവെള്ളമാണ് പശുക്കൾക്കു കൊടുക്കുന്നത് അതിനകത്തു തന്നെ വീട്ടിലെ നല്ല അവശിഷ്ടങ്ങൾ അതു ഭക്ഷ്യയോഗ്യമായ അവശിഷ്ടങ്ങൾ എന്തെങ്കിലുമുണ്ടെങ്കിൽ തൊലിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതു കാടി വെള്ളത്തിൽ കലക്കി കൊടുക്കണം മാത്രമല്ല പിണ്ണാക്കാണ് പശുക്കൾക്ക് ഏറ്റവും നല്ല ഭക്ഷണം അത് തേങ്ങാ പിണ്ണാക്ക് കടല പിണ്ണാക്ക് അങ്ങനേ കടകളിയിൽ നിന്ന് ലഭ്യമാകുന്ന സാധനങ്ങൾ സാധാരണക്കാർ വാങ്ങിച്ച് പശുക്കൾക്ക് കൊടുക്കാറുണ്ട് മാത്രമല്ല ആടു വളർത്തലിൻ്റെ കാര്യം പറയുവാണേൽ ആടുകൾക്ക് പൊതുവേ പുല്ല് ആണ് പശുക്കൾക്കും പുല്ലാണ് ഭക്ഷണമായിട്ടു കൊടുക്കുന്നത് വെള്ളവും ഇങ്ങനെത്തന്നെയാണ് കാടിയും ഇതുപോലെത്തന്നെ പോകുന്നു പിന്നെ പുഷ്ടി പുളുമ്പടി പിണ്ണാക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആടുകൾക്കും ബാധകമാണ് അതുമാത്രമല്ല ഇവരുടെ ആരോഗ്യത്തിനു വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു അസുഖങ്ങൾ ഇവർക്ക് വരികയാണെങ്കിൽ മൃഗാശുപത്രി എല്ലാ ജില്ലകളിലും എല്ല പ്രത്യേകിച്ച് എല്ലാ പഞ്ചായത്തുകളിലും ഉണ്ട് ഇവിടെ നിന്ന് ആവശ്യമായ മരുന്നുകൾ വാങ്ങിച്ച് ഇതുങ്ങളുടെ ഭക്ഷണത്തിൽ കലക്കി അവർക്ക് അവരുടെ ആരോഗ്യപരമായൊരു ഒരു മിഗ മൃഗ വളർത്തൽ അതിനു വേണ്ടിയിട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എല്ലാവിധ ആനുകൂല്യങ്ങളും ലഭ്യമാണ് പല പല വിധത്തിലുള്ള സബ്സിഡികളും ഒരു മൃഗ വളർത്തലിലും ലഭിക്കുന്നതുമുണ്ട്